ഹലോ

ആ അതെ അല്ലോ എന്തായിരുന്നു അതെയോ എന്തായിരുന്നു വേണ്ടത്

മ്ഹ് മ്ഹ് എന്താ ഫങ്ങ്ഷന് എന്താണ് അങ്ങനെ അതെയോ മ് മ് വൈകിട്ടത്തേക്ക് ആ ആ അത് പല റേറ്റിലുള്ള ഇത് ഉണ്ട് ക്വാളിറ്റി അ നല്ല ഇതാണ് നല്ല ആണോ എപ്പോഴത്തേക്കാണ് വരാന് പറ്റുക

ആ ആ കൊടുത്തു വിടണോ അതോ

അഞ്ചു മണി ആവുമ്പോഴത്തേക്കുമോ ആ എത്തിക്കാം എത്തിക്കാം ആ ആ പിന്നെ വേറെ എന്തെങ്കിലും വേണമായിരുന്നോ വെറ്റില മുറുക്ക് ജിലേബി ലഡ്ഡു കേക്ക് ഉം ഉം പല ഐറ്റം കേക്കുകൾ ഉണ്ട് ആ ഇവിടെ കടയിൽ ഉണ്ടാക്കും അത് ആ അത് ആ ഉണ്ട് ഉണ്ട് ആ എന്തോ ഉണ്ടാക്കി തരാം പല മോഡല് ആ നിങ്ങൾ പറയുന്നത് ഇതിനുള്ളത് അനുസരിച്ചു ഉണ്ടാക്കി തരാം ഓക്കേ ആ ആം എപ്പോഴത്തേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഹലോ ആ ആ ഡെലിവറി ചെയ്യാം അത് സമയം പറഞ്ഞാൽ മതി എവിടെയാണെന്നുള്ളത് ആ പൈസ ഗൂഗിള് പേ ചെയ്താൽ മതി ഗൂഗിള് പേ ആയിട്ട് ചെയ്യാന് സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ ആയാലും അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് എന്തോ അങ്ങനെ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല കേട്ടോ ഞങ്ങളുടെ കടയിലെ ഒരു ഇത് പ്രത്യേകതയും അതാണ് അങ്ങനെ

ആ ഉണ്ട് ഉണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട് അടിമാലി കട്ടപ്പന അങ്ങനെയൊക്കെയുള്ള ഇത് ഉണ്ട് രണ്ടു മൂന്നു കടകളൊക്കെ ഉണ്ട് എന്തോ ആ ആ ഉണ്ട് ഉണ്ട് ഉണ്ട്

പിന്നേ എപ്പോഴാണ് എന്നത്തേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഓഡറ് പറഞ്ഞാൽ മതി അത് അനുസരിച്ചു അഞ്ച് മണിയോ ആ ഓക്കേ എന്തോ ആ ഉവ്വ് ഉവ്വ് അത് ഞങ്ങൾ അങ്ങനെ കൊടുക്കാറുള്ളതാണ്

ഹാ ഹാ ആ അങ്ങനെയൊക്കെ തരും അതാണല്ലോ നമ്മുടെ ആ അതില്ല അത് അതാണല്ലോ നമ്മുടെ കടയുടെ ഇത് നല്ല രീതി തന്നെ വിള ചെയ്യുന്നതാണ് അഞ്ചര അഞ്ചര ഓക്കേ ഓക്കേ